വിദ്യാഭ്യാസം പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടും പരമ്പരാഗത ആചാരങ്ങളേ ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കാം കാരണം പരമ്പരാഗത ആചാരങ്ങളെപ്പറ്റി ഇൻഡെപ്ത്ത് ആയിട്ട് പഠിക്കുന്ന ഒത്തിരി വിദ്യാഭ്യാസ രീതികൾ ഉരുത്തിരിഞ്ഞു വന്നത് കാരണം അതിനോടുള്ള ഒരു അക്സെപ്റ്റൻസ്സ് കൂടിയിട്ടേയുള്ളൂ എന്നാൽ ചില സമുദായങ്ങളിൽപ്പെടുന്ന കുട്ടികൾക്ക് ഇടയ്ക്ക് വിദ്യാഭ്യാസം വന്നതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പരമ്പരാഗത ആചാരങ്ങൾ അനുഷ്ഠാനിച്ച് വരുന്നത് അനുഷ്ഠിച്ച് വരുന്നത് അവരടെ സ്റ്റാറ്റസിനോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവരുടെ മൂല്യത്തിനോ ഒക്കെ ഒരു കോട്ടം പറ്റുന്നു എന്നുള്ള ഒരു അയ്ഡ്യ വന്നത് നമ്മുടെ പൂർവിക ആൾക്കാരിൽ ഒത്തിരി ടെൻഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് കാരണം പൂർവികർ പറയുന്ന പല കാര്യങ്ങളും യുവതലമുറയ്ക്ക് അക്സപ്റ്റബിൾ ആയിട്ട് തോന്നുന്നില്ല അതവർക്ക് കുറച്ചുംകൂടി വിദ്യാഭ്യാസം കിട്ടിയതുകൊണ്ടും ഈ ആചാരങ്ങളുടെയക്കെ പോസിറ്റീവ്സും നെഗറ്റീവ്സും അവർ തിരിച്ചറിഞ്ഞത് കൊണ്ടുമാവാം അപ്പോൾ അതുകൊണ്ട്തന്നെ വിദ്യാഭ്യാസം പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടും ആചാരങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്